ഞങ്ങൾ വിശ്വസിക്കുന്ന മതം കത്തോലിക്കാ മതമാണ് അത് ഞങ്ങളെ ശാരീരികവും മാനസികവുമായ എല്ലാ വളർച്ചയെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശു ഞങ്ങൾ വിശ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ പറയുന്നുണ്ട് ആരോഗ്യം ഉള്ളവർക്കല്ലാ രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം ഈ മതവും വിശ്വാസവും വൈദ്യനും എല്ലാം ഒരേപോലെ പോകേണ്ടതാണ് നമുക്കു വിശ്വാസവും വേണം വൈ മരുന്നും വേണം അല്ലാതെ ഒരു കാര്യം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മള് അതുകൊണ്ട് മത ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക അതനുസരിച്ച് അതിന് അതിന് ശ് അതുപോലെ തന്നെ മരുന്നും ഉൾക്കൊള്ളുക ഒന്നിനു തന്നെ ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാന് പറ്റുകേലാ നമ് നിരീശ്വര വാദികള് പറയും മതമില്ല മതം വേണ്ട ദൈവം വേണ്ട മരുന്ന് മതി സയൻസ് മതി പക്ഷെ ഇത് അവസാനം ഇതിങ്ങനെ പോയാലും അവസാനം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും മുന്നോട്ടു പോകാൻ വരില്ല അതുപോലെ തന്നെ വിശ്വാസവും ദൈവ വിശ്വാസവും മരുന്നും രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് നമ്മള്ക്ക് ആരോഗ്യമുള്ള ദൈവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മനസും ആരോഗ്യമുള്ള ശരീരവും കിട്ടത്തുള്ളൂ അതിന് അനുസരിച്ച് നമ്മള് രാവിലെ വെളു മൂന്ന് മണിക്ക് തന്നെ എണീക്കുക പ്രാർത്ഥിക്കുക നമ്മള് നമ്മുടെ ദിനചര്യകളൊക്ക ചെയ്തേച്ച് പ്രാർത്ഥിക്കുക ഏകാഗ്രത ഏകാഗ്രതമായ മനസ്സ് വേണമെങ്കിൽ ആരോഗ്യമായ ശരീരം വേണം ആരോഗ്യമായ ശരീരത്തിന് നമ്മള്ക്ക് അതനുസരിച്ച് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം നല്ലതായിരിക്കണം ദൈവത്തെ മറന്നിട്ട് നമ്മള്ക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല നമ്മളും അതുപോലെ തന്നെ നമ്മള്ക്ക് ദൈവത്തെക്കുറിച്ച് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് അന്നേരം നമ്മള് നമ്മുടെ ചുറ്റുപാടുകളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ദൈവമല്ലാതെ ബൈബിളിൽ പറയുന്നില്ല ദൈവത്തെ മാത്രമായിരിക്കില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മള് ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയില് സംസാരിക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് കരുണയുടെ മുഖം കാണാൻ പറ്റണം കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ നമ്മുടെ പരിസ്ഥിതി നല്ല പോലെ സംരക്ഷിക്കാനോ ഇത് നമ്മള്ക്ക് വേണ്ടി മാത്രം ദൈവം തന്നിട്ടുള്ളതല്ല നമ്മുടെ ചുറ്റുപാടുകൾ നമ്മള്ക്ക് വേണ്ടിയും നമ്മുടെ അടുത്ത തലമുറകൾക്കും വേണ്ടിയാണ് കഴിഞ്ഞ തലമുറ നമുക്ക് തന്നേച്ചു പോയി നമ്മള് അന്നേരം അത് സംരക്ഷിക്കുക നമ്മുടെ പരിസ്ഥിതി സംരഷി ഇതെല്ലം മതത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ മതത്തില് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകള് സംരക്ഷിക്കുക നമ്മുടെ അന്തരീക്ഷം സംരക്ഷിക്കുക അന്തരി അന്തരീക്ഷം മലിനീകരിക്കാതിരിക്കുക നമ്മള്ക്ക് ഇതെല്ലാം ചെയ്യുമ്പോള് മാത്രമേ നമ്മള്ക്ക് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത രീതി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഞങ്ങടെ ബൈബിൾ ഞങ്ങ നിങ്ങളുടെ ദൈവം കാരുണ്യവാനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരുക്കുക കരുണ എന്ന് മാത്രം പറഞ്ഞാല് പോര നമ്മുടെ പ്രവൃത്തികൾ വഴി കരുണ കാണിക്കുക നമ്മളെ സംസാരം വഴി കരുണ കാണിക്കുക നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ കരുണ കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോടായാലും ദൈവത്തെ വിശ്വസിച്ച് കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ദൈവം വേണ്ട മരുന്ന് മാത്രം മതി എന്ന് പറഞ്ഞാല് പറ്റില്ല പിന്നെ നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാവിധ കാര്യങ്ങൾക്കും മതവും വേണം മരുന്നും വേണം നമ്മുടെ മനസിനെ സജ്ജമാക്കാൻ നമ്മള് മരുന്ന് കഴിച്ചുകൊണ്ടു മാത്രമല്ല നമ്മള് ഏകാഗ്രതയോടെ ഇരിക്കണം ഏകാഗ്രതയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിലാശ്രയിക്കുക മുന്നോട്ട് പോവുക ഇതെല്ലാം ഒന്നിച്ച് ബന്ധിപ്പിച്ചിട്ടുള്ളൊരു ശൃംഖലയാണ് മതവും മരുന്നും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസും വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ കണ്ടെത്താനും മുന്നോട്ട് പോകാനും സാ സാധിക്കുകയുള്ളു അല്ലാതെ ഒന്നുകൊണ്ടു മാത്രം ഒരു കാര്യങ്ങളും നടക്കത്തില്ല